എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസാണ് നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഒക്കെ ഉപയോഗിക്കുന്ന സിലിണ്ടർ ഗ്യാസ് അത് നമ്മൾ തീ കത്തിക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഗ്യാസാണ് ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പോൾ മര്യാദക്ക് അത് യൂസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സ്ഫോടനം വരെ സംഭവിച്ചേക്കാം നമ്മൾ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ അതായത് മരിച്ച് പോയേക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ചിലപ്പം അറിയാണ്ട് എങ്ങാനും തുറന്ന് വെക്കുക ഇപ്പോൾ ഗ്യാസ് അതിൻ്റെ ഇത് തുറന്ന് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ ഒരു ലൈറ്റ് വന്ന് വീണാൽ തന്നെ ചിലപ്പോ സ്ഫോടനവും കാര്യങ്ങളൊക്കെ സംഭവിക്കാം പിന്നെ അത് കൊണ്ടിത് കെയർ ഫുള്ളായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പ പലരീതിയിൽ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ടാങ്കറിൽ ഒക്കെ കൊണ്ട് പോകുന്ന ഗ്യാസും കാര്യങ്ങളൊക്കെ സ്മെൽ ഒന്നും ഇല്ലാത്ത ടൈപ്പാണ് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഗ്യാസ് ലീക് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനു സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ടാങ്കറിൽ ഒന്നും കൊണ്ട് വരുന്ന ഗ്യാസിന് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ എന്താ പറയുക ഇപ്പോൾ ഒരു വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ഫോടനം അതായത് ആ ഒരു പ്രദേശം മൊത്തം കത്തി ചാമ്പലാകുന്ന രീതിയിലേക്കാണ് ഗ്യാസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഗ്യാസ് എന്നുള്ളൊരു സംഭവം നല്ല കെയർ ഫുള്ളായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം